മണ്പാത്രനിര്മ്മാണം ഒരു കലാരൂപം തന്നെയായി വികസിച്ചിട്ടുണ്ട് ഇപ്പോൾ കാരണം ഇപ്പോൾ പാത്രങ്ങൾ മാത്രം അല്ലല്ലോ വേറേയും ഒരുപാട് രൂപങ്ങൾ കൃഷ്ണന്റേയും അങ്ങനെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മൾ കടല്ത്തീരത്തൊക്കെ പോവുമ്പോഴെ അറിയാവൂ പലയിടുത്തും എന്തെല്ലാമാണ് അവർ ചെയ്തു വച്ചിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞുകൂട പണ്ടാണെങ്കിൽ വെറും ചട്ടിയും കലവും മാത്രമാണുണ്ടായിരുന്നതും പിന്നേ വിനോദസഞ്ചാരികളെ ആകര്ഷിക്കാന് വേണ്ടിയായിരിക്കാം ഇപ്പോൾ അവരിതൊക്കെ ചെയ്യുന്നത് പിന്നെ വിനോദസഞ്ചാരികള്ക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പഠിക്കാം എന്നുള്ള ഒരു രീതിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ വിനോദസഞ്ചാരികൾ അങ്ങോട്ട് വരികയും കുറേ കാശും കിട്ടും നമുക്ക് ആ രീതിയിൽ പിന്നെ നമ്മുടെ ഈ പിന്നെ നമുക്ക് മണ്പാത്രനിര്മ്മാണം കുറേക്കൂടെ ആള്ക്കാർ അറിയാനും ഉപകരിക്കും പിന്നേ ഇവര്ക്കും ഒരു സന്തോഷമാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാല് ആ ഇന്നിടത്ത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരവസരം ഉണ്ട് എന്നുവച്ച് അവരത് അവിടെ വരാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് അത് ഒരു നല്ല അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്